ഞാൻ ഈയിടെ അടുത്തു വരച്ച ചിത്രത്തിൽ പലതരം പൂക്കളുണ്ടായിരുന്നു പലതരം വീടുകളുണ്ടായിരുന്നു പലതരം പൂമ്പാറ്റകളുണ്ടായിരുന്നു ഇതെല്ലാം ഞാൻ കഷ്ടപ്പെട്ടായിരുന്നു വരച്ചത് ഇത് വരയ്ക്കാൻ പഠിപ്പിച്ചതെൻ്റെ അമ്മയാണ് അമ്മയുടെ പേര് ശ്രീന എന്നാണ് അമ്മ വളരെ ഭംഗിയായി ചിത്രം വരയ്ക്കുന്നൊരു വ്യക്തിയാണ് വായിൽ കൊണ്ടു മാത്രം എന്നാലും ഞാൻ വരയ്ക്കുന്നു അതു പോലെ തന്നെ വര പലപ്പോഴും ഒരു മനുഷ്യനെ സമാധാനപ്രിയനാക്കൊ ആക്കാറുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു ചിത്രം വരയ്ക്കാനുള്ള പ്രക്രിയ എൻ്റെ അമ്മ പറഞ്ഞു തരാറുണ്ട് ഒരു ചിത്രം വരയ്ക്കാൻ ഞാൻ വേറെ ഓൺലൈൻ കോഴ്സുകളൊന്നും എടുത്തിട്ടില്ല ഓഫ് ലൈൻ ഉറവിടങ്ങളിൽ ഒന്നാണ് അമ്മ അതായത് അമ്മ എനിക്ക് പറഞ്ഞു തരുന്നത് ഞാൻ അടുത്തിടെ വരച്ച ചിത്രം ഒരു പൂച്ചക്കുട്ടിയുടേതായിരുന്നു ആ പൂച്ചക്കുട്ടിയെ കിണറ്റിൻ്റെ സൈഡിൽ നിന്നാണ് ഞാൻ കണ്ടത് അവിടെ വെച്ചാണ് ആ പൂച്ചക്കുട്ടിയുടെ ചിത്രം ഞാൻ വരച്ചത് ആ പൂച്ചയുടെ നിറം കറുപ്പായിരുന്നു